ഞാൻ കാണാറുള്ള കായിക മത്സരങ്ങൾ ഫുട്ബോൾ ടെന്നീസ് ഷട്ടിൽ ക്രിക്കറ്റ് എന്നിവയാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫുട്ബോൾ ആണ് ഫുട്ബോളിൽ എന്റെ പ്രിയതാരം മെസ്സി ആണ് ഞാൻ സുഹൃത്തുക്കളോടൊപ്പമാണ് ടി വിയിൽ ഇരുന്നു കാണുക ടി വിയിൽ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ കറന്റ് പോവാറുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഈ ഫോണിൽ ഫോൺ യൂട്യൂബിൽ ഷോ ഹൈലൈറ്റ്സ് ആണ് അധികം കാണാറുള്ളത്